നമ്മുടെ പ്രദേശത്ത് എന്ന് ഒക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും തൊഴിൽ അവസരങ്ങൾ കൂടുതൽ നോക്കുന്നത് ഗവൺമെന്റ് ജോലി കാര്യങ്ങൾക്ക് ആണ് ഇപ്പോൾ എല്ലാവരും സമയം ചിലവഴിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ട് ഉണ്ടങ്കിൽ നമ്മൾ അതിന് വേണ്ടി തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഗവൺമെൻറ് ജോലി കിട്ടാൻ സാദ്ധ്യതയുണ്ട് ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതകാലം അതായത് ലൈഫ് ടൈം മുഴുവൻ നമുക്ക് അതായത് ഒന്നും പേടിക്കാനില്ല കാരണം നമുക്ക് ഇപ്പം ഇപ്പം നമ്മൾ മരിച്ചിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതായത് നമ്മുടെ അമ്മയ്ക്കൊ നമ്മുടെ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ളവർക്കൊക്കെ ജോലി കിട്ടും പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയേഡ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതായത് നമ്മുക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പകുതി പൈസ നമുക്ക് കിട്ടും പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ അതായിത് നമ്മൾ പിരിഞ്ഞു വരുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ കിട്ടും അങ്ങനെയുള്ള കുറേ ഒരുപാട് കാര്യങ്ങൾ ഒക്കെയുണ്ട് പിന്നെന്നുവെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഒന്നും നമുക്ക് അങ്ങനെ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാദ്ധ്യതയില്ല പിന്നെ പ്രൈവറ്റ് കമ്പനീസിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒക്കെ കൂടുതലും ഇപ്പം അതായിത് ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ പോകുന്നത് തന്നെ മെയിൻ ആയിട്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ്